എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂന്ന് മലകളാണ് കേറീട്ടുള്ളത് ഒന്ന് മലയാറ്റൂർ മല രണ്ട് ചെമ്പ്ര പീക് വയനാട് ജില്ലയിലെ മൂന്ന് വയനാട് ജില്ലയിലെത്തന്നെ അംബൂറ്റി മല വയനാട് ജില്ലയിലെ ചെമ്പ്ര പീക്ക് ഏഴ് മടക്കുകൾ ഉള്ള വലിയ മലയാണെങ്കിൽ പോലും ഇവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ മല കേറുമ്പോൾ നമ്മൾ വല്യതോതിൽ ടയേർഡ് ആകുകയില്ല വല്യ പ്രശ്നങ്ങൾ അഭിമുഖികരിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ മലയാറ്റൂർ മല കയറുമ്പോൾ അവിടുത്തെ ചൂട് വയനാടിനെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ആണ് അത്തരത്തിൽ വലിയ ഒരു ആ ചൂടിൽ നമ്മക്ക് കേറിയ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്ന ഒരു സാഹചര്യമാണ് എന്നാൽ വയനാട് ജില്ലയിലെ അംബൂത്തി മല വളരെ സ്റ്റീപ് ഒരു മലയാണ് അതിലേക്ക് കേറുബോൾ നമ്മൾ പേടിയോട് കൂടിയാണ് ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുക എന്നിരുന്നാൽ പോലും ഈ മലകൾ ഒന്നും കേറുമ്പോൾ നമ്മൾ കേറിയ മലയുടെ ആ എക്സ്പിരിയൻസ് നമ്മുടെ നമ്മുടെ എക്സ്പിരിയൻസ് വെച്ചുകൊണ്ട് പരിചയം വെച്ചുകൊണ്ട് നമ്മുക്ക് വല്യ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മൾ വല്യ പാഠങ്ങൾ പഠിച്ചുവെന്നു ഒന്നും പറയത്തക്ക രീതിയിൽ പറയാൻ ഉള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല